നമ്മൾ നമ്മളുടെ മക്കളെ പഠിപ്പിക്കുന്നത് അവർ അവരുടെ സ്വന്തം കാലിൽ തന്നെ നിൽക്കാൻ വേണ്ടിയുള്ള വേണ്ടിയാണ് അതുപോലെ തന്നെ ആ പിന്നെ അവര് അവർക്ക് ഒരാളെ ആശ്രയിച്ചു ജീവിക്കേണ്ട അവരുടെ അവരുടെ പൈസ കൊണ്ടു തന്നെ അവർക്കു ജീവിക്കാം അതുപോലെ ഇപ്പോൾ വിദ്യാഭ്യാസമില്ലെങ്കിൽ ഇപ്പോൾ ജോലിയില്ല അതുകൊണ്ടു നമുക്ക് ഒരാളെ ആശ്രയിച്ചു ജീവിക്കേണ്ടി വരും അപ്പോള് ഒരു കുടുംബത്തിൽ ഒരാൾക്കു മാത്രം ജോലിയുണ്ടായിട്ടു കാര്യമില്ല ഇപ്പോൾ എല്ലാവർക്കും ജോലി വേണം അപ്പോൾ നമ്മൾ കൂടുതൽ പൈസ മുടക്കി നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടും പഠിപ്പിക്കും അതുകൊണ്ടു കാര്യമില്ലാതാവുകയില്ല നമുക്കു തന്നെ കാര്യമുണ്ടാകും നമുക്കും നമുക്കും അവരുടെ ഭാവിയിലും അവർക്കും എല്ലാവർക്കും അവരുടെ മക്കൾക്കും എല്ലാവർക്കും അതു കാര്യമാകും പിന്നെ മ്മൾ നമ്മളുടെ നമുക്കു തന്നെ തോന്നും നമുക്കു കൂടുതൽ പഠിച്ചാൽ മതിയായിരുന്നു അതുപോലെ എന്തെങ്കിലും ജോലിയുണ്ടെങ്കിൽ നമുക്കു തന്നെ ഒരാളെ ആശ്രയിക്കേണ്ടിവരില്ല അങ്ങനെയൊക്കെ തോന്നും നമുക്കു തന്നെ അപ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും നമ്മൾ നമ്മളെ കുട്ടികളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു പഠിപ്പിക്കുകയും അവരെ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കുകയും അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു നല്ല ജോലിയിൽ ജോലി ജോലി വാങ്ങിക്കൊടുക്കുകയും ചെയ്ത് അവരുടെ ജീവിതം സന്തോഷകരമായാൽ നമുക്ക് നമുക്കും അവർക്കും സമാധാനമാവും അതുപോലെ സന്തോഷമായി ജീവിക്കാം പിന്നെ എത്രത്തോളം വിദ്യാഭ്യാസമുണ്ടോ എത്ര പഠിച്ചാലും അതിന് ഒരു കുറവും വരില്ല എത്ര പഠിച്ചാലും നമുക്ക് അത്രത്തോളം ജോലിയും അതിനനുസരിച്ചുള്ള ജോലിയും അതിനനുസരിച്ചുള്ള ശമ്പളവും എല്ലാം അതും ലഭിക്കും പിന്നെ കൂടുതൽ മറുനാട്ടിലും അതുപോലെ നമ്മളുടെ നാട്ടിലും കൂടുതൽ അംഗീകാരവും എല്ലാം കിട്ടുകയും സ്ത്രീകൾക്ക് ഒന്നുകൂടെ മുൻഗണന ലഭിക്കുകയും ചെയ്യും പിന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തില് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ നല്ലതാണ് നല്ല പഠിപ്പിക്കുക നല്ല നല്ലവണ്ണം പഠിപ്പിക്കുക നല്ല രീതിയിൽ പഠിപ്പിക്കുക അവരെയും അവരെ നല്ല ഉന്നത വിജയത്തിലേക്ക് എത്തിപ്പിക്കുക എന്നാൽ അവർക്കും നമുക്കും സന്തോഷമായി ജീവിക്കാം